എനിക്ക് പഠിച്ച് നല്ല പോലെ ഒരു ജോലി വേണമെന്ന് ഒരു നേട്ടമായിരുന്നു അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്യും അതു തന്നെയാണ് എൻ്റെ മകനെയും പത്താം ക്ലാസ്സില് ഫുൾ എ പ്ലസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ ആ ഒരു എയിം ഉണ്ടായിരുന്നു അതും ഞാൻ സാധിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവനെ ഒരു എഞ്ചിനിയറിംഗ് സ്റ്റുഡന്റ് ആക്കണമെന്ന് ആ ഒരു ഇതുണ്ടായിരുന്നു നല്ല പോലെ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് എയ്റ്റി പെർസെന്റേജിൻ്റെ മീതെ മാർക്ക് വാങ്ങിച്ച് എനിക്ക് നല്ല ഒരു നേട്ടം എൻ്റെ മകൻ നേടി തന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിനും നല്ല പോലെ ഒരു ഹോട്ടൽ തുടങ്ങണം പറഞ്ഞിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും ഞാൻ നേടി കഴിയുകയും ചെയ്തു എനിക്ക് നല്ല സന്തോഷവും ഉണ്ട് ഇനിയും മകനെ നല്ല പോലൊരു ജോലി ചെയ്ത് നല്ല ഒര് പൊസിഷനില് എത്തണം പറഞ്ഞ ആ നേട്ടവും കൂടി എനിക്ക് ഉണ്ട് അതും ഒന്ന് നേടി എടുത്താൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്